എൻ്റെ ഒരു സുഹൃത്ത് പ്ലസ്ടുവിൽ വളരെ അധികം മാർക്കോടുകൂടി പാസ്സായ ഒരു സുഹൃത്ത് അവൻ ഐ ടി മേഖലയിൽ വളരെ കഴിവുള്ളവൻ ആയിരുന്നു ശാസ്ത്രസാങ്കേതിക വിദ്യയിൽ വളരെയധികം കഴിവ് തെളിയിച്ചവൻ അതുകൊണ്ട് തന്നെ അവൻ ആ മേഖലയിൽ തന്നെ തുടർ പഠനത്തിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു സഹായത്തിന് ഞാനും ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുമായുള്ള ബന്ധപ്പെട്ട അനവധി കോഴ്സുകൾ തപ്പി നടന്നു നല്ല കോളേജുകൾ അന്വേഷിച്ചു ഐ ഐ ടി എം സി സി ഐ ഐ എസ് ടി എന്നിങ്ങനെ നിരവധി കോളേജുകളിൽ ലിസ്റ്റ് കിട്ടി പല കോ കോളേജുകളിലും സീറ്റ് സീറ്റിനു വേണ്ടി അപേക്ഷിച്ചു അപ്പോൾ തന്നെ അവന് വളരെ സന്തോഷമായി തീർന്നു